അത് വെച്ചീന ഇതൊരു അന്ധവിശ്വാസമാണോ വിശ്വാസമാണോയെന്നറിയില്ല ഞങ്ങള് ദിവസവും നാല് മണി ആയിക്കയിഞ്ഞാൽ ഗ്രൗണ്ടിൽ കളിയ്ക്കാൻ പോകും ക്രിക്കറ്റ് അത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു കളിയല്ല ഞങ്ങൾക്കതെല്ലാമാണ് എന്ത് വിഷമം ഉണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും ഞങ്ങള് ക്രിക്കറ്റ് കളിച്ചങ്ങോട്ട് തീർക്കും അഞ്ച് മണിക്ക് വന്നിരുന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അഞ്ചര ആകുമ്പോഴേക്കും ആൾക്കാരൊക്കെ വരും വന്നിട്ട് ടീമാക്കിയിട്ട് അഞ്ചും പത്തും ടീം പിരിഞ്ഞ് അഞ്ച് ടീം പത്ത് ടീം ടീം പിരിച്ചിട്ടൊരു കളിയുണ്ട് അതിൽ ഈ അനന്തകൃഷ്ണൻ ഞങ്ങള് വിളിയ്ക്കാ ആൻറ്റപ്പൻന്നാണ് ആൻറ്റപ്പൻ ഉള്ള ടീമിലുണ്ടല്ലോ അവൻ ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയില്ലെങ്കിൽ അവനിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും ബാറ്റ് ചെയ്യണവരൊക്ക ഔട്ട് ആവും ഇവന് ഫസ്റ്റ് ബാറ്റിംഗ് കൊടുത്തില്ലെങ്കിൽ ചങ്ങായി പ്രാകാൻ തുടങ്ങും നമ്മള് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ വന്നു പ്രാർത്ഥിക്കും ഭഗവാനേ എനിക്ക് ബാറ്റിംഗ് തരാണ്ടവൻ ബാറ്റ് ചെയ്താൽ ബോളറ് ബോൾ എറിയും നമ്മള് അടിക്കാൻ വീശും ഒന്നുമില്ലെങ്കിൽ ക്യാച്ച് ഔട്ട് അല്ലെങ്കിൽ റൺ ഔട്ട് അല്ലെങ്കിൽ സ്റ്റമ്പ് ഔട്ട് അല്ലെങ്കിൽ കീപ്പർ ക്യാച്ച് പിടിക്കും ബാറ്റിൽ ബോൾ ടച്ച് ഉണ്ടാവും എങ്ങനേലും ഔട്ട് ആവും ഈ ചെക്കൻ്റെ പ്രാർത്ഥന പറഞ്ഞാലുണ്ടല്ലോ നിങ്ങള് പറയും ഇതൊക്കെ അന്ധവിശ്വാസം കളിയ്ക്കാൻ അറിയാഞ്ഞിട്ടാണെന്ന് ചെക്കന് ടീം ചെക്കനുള്ള ടീം തോൽക്കും ഇവൻ തോൽപ്പിക്കും പ്രാകീട്ട് ഇവന് ഫസ്റ്റ് ബാറ്റിംഗ് കൊടുത്തില്ലെങ്കിൽ അതേപോലെ ബോളിങ് ഇവനിഷ്ടമുള്ള ഓവറില് ബോൾ എറിയാൻ ഇവനെ സമ്മതിച്ചില്ലെങ്കിൽ അതും അത് തന്നെ അവസ്ഥ നമ്മള് എറിയുന്ന ബോളൊക്കെ ബാറ്റ്സ്മാൻമാരടിച്ച് സിക്സ് ആക്കും ഇവൻ മാത്രം പോയി എറിഞ്ഞാൽ ഒന്നും ആവില്ല അതേപോലെ ഇവൻ ഔട്ട് ആവുകയും ഇല്ല അതാണ് രസം സംഭവം ഫുൾ വീശലാ ബാറ്റിൽ കൊളളുകയില്ല സ്റ്റമ്പിലും കൊള്ളില്ല പന്ത് ബാറ്റുമ്മേലും ബോൾ കൊള്ളില്ല സ്റ്റമ്പുമ്മേലും ബോൾ കൊള്ളില്ല നിന്ന് വീശും പത്ത് പൈസയ്ക്ക് കൊള്ളില്ല അവനെ നിന്ന് വീശും നിന്ന് വീശും അതാണ് പ്രശ്നം അവൻ ഔട്ട് ആകുകയും ഇല്ല ഔട്ട് ആയെന്നുവെച്ചാല് പിന്നെ അതുപറഞ്ഞ് സമാധാനിക്കാം ഇത് ഔട്ട് ആകുകയും ഇല്ല ഇതാണ് അതാണ് ഞങ്ങടെ ആൻറ്റപ്പൻ തിയറി അവൻ ഫസ്റ്റ് ഇറങ്ങിയില്ലെങ്കിൽ ഷുവർ ആണ് നിങ്ങൾ ഔട്ട് ആവും